നമ്മൾ എല്ലാ വിനോദങ്ങളിലും വിനോദം ഇങ്ങനെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ പരിപാടികളിൽ പങ്കെടുക്കാനെക്കെ നമ്മൾ നല്ല രീതിയിൽ പോകാറുണ്ട് പിന്നെ ഒഴിവ് സമയങ്ങളിലെന്ന് പറഞ്ഞാൽ ടി വി ടി വി കാണും പിന്നെ മൊബൈലിൽ കളിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല നമുക്കതൊന്നും ഇഷ്ടമല്ല പിന്നെ നാടോടി പാട്ടുകളൊന്നും പാടാറില്ല നൃത്തം എന്ന് പറഞ്ഞാൽ നൃത്തം അങ്ങനെ നാടകം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല വായനാശീലങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വായിക്കും പിന്നെ പിന്നെ വായിക്കാനൊന്നും സമയമൊന്നുമില്ല നമുക്ക് ഓരോ ഇതാണ് നമ്മളെ കഷ്ടപ്പാടിലൂടെ പോകുന്ന ആളാണ് അതുകൊണ്ട് അതിനൊന്നും നേരമില്ല പിന്നെ പിന്നെ കുടുംബശ്രീയിലും അവിടിവിടെയെല്ലാം കലാപരിപാടിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്നതെല്ലാം നമ്മൾ പോകും പരിപാടികൾ അവതരിപ്പിക്കും എല്ലാത്തിലും പങ്കെടുക്കും അതൊക്കെയാണ് നമ്മുടെ വിനോദം എന്ന് പറയുന്നത് പിന്നെ നാടകം നൃത്തമൊന്നും നമ്മൾ ചെയ്യുന്നില്ല അങ്ങ് അങ്ങനത്തെയൊന്നും നമുക്കറിയില്ല